ആ ഹലോ ബ്രോ ഞനേ ഇമ്മളങ്ങനെ കോഴിക്കോട് ഭാഗത്തുന്നു വരുന്നതാണ് ഇപ്പോൾ പാലക്കാട് ഇവിടെ അടുത്തൊരാളോട് ചോദിച്ചപ്പോൾ ഞാനൊറ്റപ്പാലത്ത് എത്തിയപ്പോൾ ഇങ്ങനെ തൻ്റെ നമ്പർ ഇങ്ങനെ തന്നു ചേട്ടൻ്റെ ഓ ഞാൻ പാലക്കാട് ജില്ലയിലാണ് താമസം ആണല്ലേ ഇവിടെ അടുത്തണോ വീട് ഞാൻ ഇവിടെ ഒറ്റപ്പാലം ഭാഗത്താണ് നിക്കണത് ഒറ്റപ്പാലം ഭാഗത്ത് തന്നെയാണോ വീട് ആണല്ലേ ഓ സന്തോഷം ഞാൻ ഇവിടെ ഈ ഒരു കോളേജുണ്ടല്ലോ നമ്മുടെ ജവഹർലാൽ നെഹ്റു കോളേജ് അവിടെ ഇങ്ങനേ എം ബി എക്ക് ചേരാൻ വേണ്ടി ഒരു എൻക്വയറിക്കൊക്കേ വേണ്ടി വന്നതാണ് ഏറെക്കുറെ എനിക്ക് കോളേജും അതിൻ്റെ എൻവോൾവ്മെൻറ്റും എനിക്ക് ഇഷ്ട്ടപ്പെട്ടു ഇനി ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജില്ലേൽ അടുത്ത് അടുത്ത് കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളേതൊക്കെയാണെന്ന് അറിയാമോ

ഓ ഓ ഓ ഓ അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ മലമ്പുഴ പോകുമ്പോൾ ഇവിടുന്ന് എത്ര ഏറെക്കുറെ എത്ര ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കേല്ലേ ഉണ്ടാവുള്ളൂ ആ ഈ മലമ്പുഴക്ക് തൊട്ടപ്പുറത്തല്ലേ കവ ആ ആ ശരി ശരി ശരി അപ്പോൾ ഞാനേ ഇതൊക്കെ ഒന്ന് അറിയാനായിട്ടപ്പം ഒരാൾ ഇങ്ങനെ പരിചയപ്പെട്ടപ്പം തനിക്ക് അറിയൂന്ന് പറഞ്ഞ് ചേട്ടൻ നമ്പർ ഇങ്ങനെ തന്നു ഇപ്പോൾ നമ്മളെ ഈ കോളേജ് എങ്ങനെയുണ്ട് തനിക്ക് ഈ കോളേജിനെ പരിചയം ഉണ്ടോ തനിക്ക് ആണല്ലേ ഇങ്ങനെ ഒരു കോളേജിലെ എം ബി എ എങ്ങനെയാണ് നല്ലതാണോ കോളേജ് ആ ആ ഇപ്പോൾ നമുക്കീ വരിക്കാശ്ശേരി മന ഈ ഒറ്റപ്പാലത്ത് ഇപ്പം നമ്മളൊക്കേ ഇതിപ്പം ഒറ്റപ്പാലത്തല്ലേ വരുക ഒറ്റപ്പാലത്ത് അടുത്ത ഒരു ദിവസം കൊണ്ട് എത്ര ഏതൊക്കേ സ്ഥലം കറക്കാൻ പറ്റും വരിക്കാശ്ശേരി മന പിന്നെ വേറെ ഏതാണുള്ള സ്ഥലങ്ങൾ ആ ആ ആ അച്ചിനകത്തൊരമ്പലം അല്ലേ ആ ആ ആ ആ ആ തരത്താല്ലേ ആ ആ നമ്മളിങ്ങനെ റീൽസിലൊക്കേ കണ്ടിട്ടുണ്ട് അച്ചിനകത്തൊരമ്പലം പൂരത്തിൻ്റെ വിഡിയോക്കേ അപ്പം ആ നമുക്കിവിടുന്നങ്ങനെ മലമ്പുഴയിൽ പോകാൻ കറങ്ങി ഒരു ദിവസം കൊണ്ട് തീരാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലല്ലോ ഇവിടെ നമ്മുടെ ഈ നെല്ലിയാമ്പതി ഇവിടെന്ന് എത്ര ദൂരമുണ്ടാകും ആ അപ്പത് ഒരു ദിവസം കൊണ്ട് തീരുന്ന സ്ഥലങ്ങളാണ് നെല്ലിയാമ്പതി പോകാം വരിക്കാശ്ശേരി മനേ പോകാം അച്ചിനകത്തൂര് ആണല്ലേ അപ്പോൾ ഓക്കേ ആൾ നിങ്ങടെ ഇത് നിങ്ങടെ പേര് എന്തായിരുന്നു ശരത്തോ ആ ഞാൻ ശ്രാവൺ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് ആ ആ ആ ആ ആ ആ ഈ നമ്മുടെ കോളേജിലെങ്ങനെയാണ് ഈ സ്ഥലങ്ങളും കോളേജിനടുത്ത് വിടുവോക്കേ ചെയ്യുവോ കോളേജിൻ്റെ തൊട്ട് അടുത്തുള്ള ഏറ്റോം നല്ല സ്ഥലം ഏതാണ് കാണാൻ സ്ഥലങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സക്കെ ആയിട്ട് പോയിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഏതാണ് ഹോ ഹോ ഹോ അതെങ്ങനെയാണ് നമുക്ക് ഡാമ്ന്ന് പറയുമ്പോൾ എന്താ ഇറങ്ങി കുളിക്കാനൊക്കേ പറ്റുവോ ആ ആ ആ എങ്ങനെയാണ് നാട്ടുകാരെങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെയുണ്ടാക്കുവോ ഓക്കേ അപ്പോൾ നമ്മുടെ കോളേജിന്ന് എത്ര ദൂരമുണ്ട് എത്ര എട്ടോ അതു പറ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്താവുള്ളൂള്ളേ ആ ഓക്കേ ഓക്കേ ഓക്കേ പിന്നെ വേറെ എന്തെങ്കിലും ആ ഓക്കേ ഓക്കേ ആ വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ നാട്ടിലെ സ്ഥലത്തിനെ കുറിച്ച്

അപ്പോ പിന്നേ വേറെ ഒന്നൂല്ലല്ലോ ആ അപ്പോൾ ഇനി താങ്ക്സ് ഡാ ആ ശരി ശരി ശരി ശരി താങ്ക് യൂ താങ്ക് യൂ